ആ ഓക്കെ എന്തായി

ആ ഓക്കെ

ആ മനസ്സിലായി എടീ ആ ഇവിടെ നമ്മുടെ വീട് ഏകദേശം ഓൾഡ് ടൈപ്പ് അങ്ങനെ രീതിയിലാണ് പിന്നെ നിനക്ക് എത്ര മെമ്പ് എത്ര ആൾക്കാർ ഉണ്ടാവും അഞ്ച് ആറ് പേർക്ക് വേണ്ടിയിട്ടാണോ ആ എന്നാൽ നമുക്ക് വേണെങ്കിൽ വീടിൻ്റെ ഇവിടെ വേറെയും സ്ഥലങ്ങൾ ഉണ്ട് നിനക്ക് വേണെങ്കിൽ ആ വീട്ടിൽ സ്റ്റേ ചെയ്യാം പക്ഷേ അവർക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യലായിരിക്കും ബുദ്ധിമുട്ട് അത് നീ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും

ആ എന്നാൽ ഫുഡ് നീ പുറത്തുനിന്ന് ആക്കിക്കോ നമുക്ക് എന്നാൽ ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാം പിന്നെ അവർക്ക് വേണെങ്കിൽ ട്രീ ഹൗസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടി വരും പുറത്തുനിന്ന് ചെയ്യേണ്ടി വരും റിസോർട്ടും കാര്യങ്ങളൊക്കെ നോക്കാം വേണെങ്കിൽ ആ നിനക്ക് കംഫർട്ട് ആണെങ്കിൽ നമുക്ക് വേണെങ്കിൽ വീട്ടിൽ ഇവിടെ നിർത്താം ആ പിന്നെ എന്നത്തേക്കാണ് പരിപാടി അടുത്ത ആഴ്ചയാണോ ആ ഓക്കെ അപ്പോൾ അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ആ ഇവർ ആരും വീട്ടിൽ ഉണ്ടാവില്ല ആ ടൈമിൽ നീ എന്നാൽ അവരോട് വരാൻ പറഞ്ഞോളൂ പിന്നെ നീയും കൂടെ ഒന്ന് വന്ന് നോക്ക് നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മതിയല്ലോ നിനക്ക് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമെങ്കിൽ നീ എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്ന് ഇങ്ങോട്ട് വന്നാൽ മതി അപ്പം നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും പിന്നെ എങ്ങനെയാണ് ഫാമിലി ആയിട്ടാണോ അവർ വരിക അതോ ഫ്രണ്ട്സ് ആണോ ആ ലേഡീസ് ഉണ്ടാവുമോ ആ അപ്പം അവർക്ക് വേറെ വേറെ റൂം കൊടുക്കേണ്ടേ ആ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം ആ അത് ഞാൻ എന്തെങ്കിലും അറേഞ്ച് ചെയ്യാം പിന്നെ നീ നോക്കിയിട്ട് പറ പിന്നെ നോക്ക് കാറ്റർ അല്ലേ നമുക്ക് നൈസ് ആയിട്ട് അവരെ പറ്റിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാമല്ലോ ആ നീ എന്തായാലും നോക്കിയിട്ട് പറ ഏ നമുക്ക് എന്തെങ്കിലും ചെയ്യാം നീ എന്തായാലും ഒന്ന് വന്ന് നോക്ക് നീ ചേട്ടനെയും കൂടെ കൂട്ടിയിട്ട് വീട് ഒന്ന് വന്ന് നോക്ക് പിന്നെ അത് പറ്റില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും റിസോർട്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കാം

ആ ഓക്കെ എന്തായാലും നീ നോക്ക് ആ ഓക്കെ ഓക്കെ എന്നാൽ നീ വന്ന് നോക്ക് എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ആ എന്നാൽ ഓക്കെ എടീ